ഇപ്പൊൾ കേരളത്തില് സർക്കാർ കുറെ നിയമം പാസാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് വലിയ പിടിയൊന്നുമുള്ള ആളൊന്നുമല്ല എന്നാലും ഇപ്പൊൾ ഓൾമോസ്റ്റ് ഒരു നിയമം ഇപ്പോ പാസാക്കാണെങ്കിൽ ഒരുപാട് കാലകടമ്പകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഓരോ നിയമോം അങ്ങനെ പെട്ടെന്നൊന്നും പാസ്സാക്കാനൊന്നും പറ്റില്ല ഓരോ നിയമങ്ങൾക്കും വേണ്ടി വരുന്ന സാധുതകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് തന്നെ പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഓരോ നിയമം പാസാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊൾ നിയമം പാസാകണമെങ്കില് നമുക്ക് അറിയാലോ ഓൾമോസ്റ്റ് ഇപ്പോ അവര് നമ്മ ഇപ്പൊൾ ഓൾമോസ്റ്റ് ഹെഡ് ആയിട്ട് വരുന്ന ഒരാള് വേണമെന്ന് തന്നെ വേണം അതിന് മുൻഗണന കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊൾ നിയമം പാസാക്കണമെങ്കില് ആദ്യം ഒരു നിശ്ചിത ആൾക്കാർ കൂടി അതിന് പിന്താങ്ങുകയൊക്കെ വേണ്ടി വരുമായിരിക്കും കാരണം അവര്ടെ നിയമം പാസ്സാവണമെങ്കിൽ ഒരാളുടെ മാത്രം താല്പര്യത്തിന് മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊൾ ആർക്കൊക്കെ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് നല്ലൊരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടു കാണിച്ച് അയാൾക്ക് അവിടെ ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും വേണ്ടി പ്രദർശിപ്പിച്ച് ആ നിയമം പാസാക്കി എടുക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം